ഒരാഴ്ചത്തെ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഞങ്ങളുടെ നാട്ടിൽ വെള്ളത്തിന് അൽപ്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും കുറേ കുറച്ച് ഏരിയകളിൽ എൻ്റെ അറിവിൽ ഞങ്ങളുടെ ഈ അറിവിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ കുറച്ച് ഏരിയയിൽ മാത്രം അങ്ങനെ ഒരു രണ്ടാഴ്ചത്തെ ക്ഷാമമൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഈ ലോറിയിൽ ടാങ്കറിൽ കൊണ്ടുവന്ന് വെള്ളം ഞങ്ങൾക്ക് തരിക തന്നിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും എന്നാലും അങ്ങനെയൊക്കെ കൊണ്ട് വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും ഇങ്ങനെ കൊണ്ടുവന്നേ ഭയങ്കര വെള്ളം കൊണ്ടുവന്ന് എല്ലാം നമ്മൾ ആ വെള്ളമല്ലേ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അന്നേരം എല്ലാവർക്കും സമയത്തിന് ഓ ഓരോ സ്ഥലത്തു ജോലിക്കു പോകാനാണെങ്കിലും എല്ലാം ഈ വെള്ളമില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഒന്നു രണ്ട് ആഴ്ച ഞങ്ങൾക്ക് വെള്ളത്തിനു ബുദ്ധിമുട്ടാണ് പിന്നെ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കിനും ഈ അതായത് മഴ തുടർച്ചയായിട്ട് വരുമ്പം വെള്ളം പൊങ്ങി കണ്ടത്തിൻ്റെ അടുത്തൊക്കെയുള്ള അടുത്തു താമസിക്കുന്ന വീടുകളിലെല്ലാം കിണറ്റിലെ വെള്ളം മോശമാകുകയും അത് ഉപയോഗിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും പിന്നെ